ആ പറഞ്ഞോളൂ ആ അതെ ആ ഓക്കെ പനി ആണല്ലെ പനി മാത്രമേ ഉള്ളോ അതോ ജലദോഷമോ തൊണ്ടവേദന അങ്ങനെ എന്തേലും വേറെ എന്തേലും അസുഖം ഉണ്ടോ തലവേദന ഉണ്ടല്ലെ ആ ഓക്കെ എന്തേലും മരുന്ന് കഴിച്ചിരുന്നോ കഴിച്ചിട്ടില്ല അല്ലേ ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ടൊന്നും ഇല്ല ആ ഓക്കെ ഇപ്പം എത്ര ദിവസായി തുടങ്ങിയിട്ട് എന്നാണ് പറഞ്ഞത് രണ്ട് ദിവസമായല്ലേ കുറവൊന്നും ഇല്ല വീട്ടില് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഗുളികയൊന്നും കഴിച്ചിട്ടും ഇല്ല വീട്ടില് പാരസിറ്റമോള് അങ്ങനെ എന്തെങ്കിലും ഗുളിക ഇരിപ്പുണ്ടോ ആ അതൊര് മൂന്ന് നേരം കഴിക്കുക ഭക്ഷണത്തിന് ശേഷം എന്നിട്ടും കുറവില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരാൻ പറ്റുമോ വയറു വേദനയും ഉണ്ടല്ലേ എന്തെങ്കിലും ഫുഡ് പോയ്സൺ അങ്ങനെ എന്തേലും ആയിരിക്കാം എന്തായാലും പാരസിറ്റമോൾ ഒന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടോന്ന് നോക്ക് അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി പിന്നെ മഴ നനയുക അങ്ങനെ എന്തേലും ചെയ്തിരുന്നോ പുറത്ത് നിന്ന് ഫുഡോ അങ്ങനെ എന്തേലും കഴിക്കുകയോ അങ്ങനെ എന്തേലും ഒക്കെ ചെയ്തിരുന്നോ കഴിച്ചിട്ടൊന്നും ഇല്ല അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം എന്തായാലും പാരസിറ്റമോൾ ഒര് മൂന്ന് നേരം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നാൽ മതി ചിലപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് അങ്ങനെ എന്തേലും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങള് എപ്പത്തേക്കാണ് എത്താൻ പറ്റുക ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ടോ ബുക്ക് ചെയ്യണം അല്ലേ അപ്പം എന്തായിരുന്നു പേര് ആ ഓക്കെ സ്ഥലം എവിടെയാണ് മാനന്തവാടി തന്നെയാണല്ലേ അതെ ഏജ് എത്രയാണ് പതിനെട്ട് ആയല്ലോ അല്ലേ ഓക്കെ അപ്പം എപ്പത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നാണ് പറഞ്ഞത് നാളെ നമുക്ക് അഞ്ച് മണി വരെയാണ് ഹോസ്പിറ്റൽ ഇപ്പം ഉള്ളത് അപ്പം അതിനുള്ളിൽ എപ്പഴെങ്കിലും വരാൻ പറ്റുവെങ്കിൽ ഓക്കെ നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എപ്പത്തേക്ക് എത്താമെന്ന് ഏകദേശം ഒര് ടൈമ് പറയുകയാണേൽ നമുക്ക് അപ്പത്തേക്ക് ബുക്ക് ചെയ്ത് വെക്കാം ആ ഓക്കെ എന്തായാലും നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടോ എന്താ ചെയ്യണ്ടേ ആ ഓക്കെ ഓക്കെ അപ്പം നാളെ ഒര് പതിനൊന്ന് മണി ഒക്കെ ആകുമ്പത്തേക്കും ഹോസ്പിറ്റല് വരെ ഒന്ന് വന്നാൽ മതി കേട്ടോ അല്ലെങ്കില് പാരസിറ്റമോള് കഴിച്ചിട്ട് കുറയുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഒന്ന് പറ ആ ഓക്കെ എന്നാൽ